ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കാലാവസ്ഥ എങ്ങനെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം സെപ്റ്റംബർ മാസമാണ് ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള വേത വേനൽക്കാലവും കാര്യങ്ങളൊക്കെയായിരുന്നു വരേണ്ടത് പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് മഴയും കാര്യങ്ങൾ ഒക്കെ വരാൻ തുടങ്ങി മഴ വരുന്നതോടെ നമുക്ക് ഇപ്പോൾ പല രീതിയിലുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴിക്കോട് ജില്ലയെ അലട്ടുന്നുണ്ടായിരുന്നു കാരണം ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് എല്ലാവരുടെയും പ്രശ്നം കാരണം എന്തെന്നുവെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസങ്ങളിലൊന്നും മഴയും കാര്യങ്ങളൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് വെള്ളം ഇനിയുള്ള കാലങ്ങളിൽ വരൾച്ചയും കാര്യങ്ങളൊക്കെയായിരിക്കും എന്നൊക്കെ ഏകദേശം ഭൂരിഭാഗം ആൾക്കാർക്കും ഭയങ്കര ഡൗട്ട് കാര്യങ്ങളൊക്കെയായിരുന്നു കാരണം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ആ പെയ്യേണ്ട സമയത്ത് മഴ പെയ്തിട്ടില്ലെങ്കിൽ ഒറവ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് വെള്ളം ഇല്ലാ വെള്ളം വെള്ളംകുടി മുട്ടുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയുണ്ടാകും എന്തായാലും അപ്പോഴൊരു ശരാശരി നമുക്ക് കിട്ടേണ്ട മഴയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത് ആറ് മൂന്ന് മില്ലീ മീറ്റർ ആ നമുക്ക് വർഷം നമുക്ക് അതായത് ഒരു വർഷത്തിൽ നമുക്ക് അത്രയും മഴ കിട്ടണം എന്നാണ് അപ്ഗ്രേഡ്ടുള്ളത് പക്ഷേ ഇപ്പോൾ നമുക്ക് അത്രയും പോ പോയിട്ട് ഒരു കുറച്ചെ കുറച്ച് മഴയേ നമുക്ക് അതിനു മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇനിയങ്ങോട്ടുള്ള കാലങ്ങളിൽ ഉണ്ടാകാൻ സാദ്ധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒക്കെയാണ് പ്രശ്നങ്ങൾ ഇപ്പം നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വല്ലാണ്ട് വിയർത്തൊലിക്കുന്ന ഒരു ചൂട് കാര്യങ്ങളൊക്കെയായിരിക്കും അപ്പം അതിന്റേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് താപനിലയിലാണെങ്കിലും ഉണ്ടാകുന്നതാണ്